ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിയുന്നു അത് ഞാൻ റ്റൊമാറ്റോയിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ മന്തിയും മന്തി റൈസ് അല്ഫാമ് പിന്നെ അൽഫാം മന്തിയാ കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ കുറച്ചു സാധനങ്ങൾ എക്സ്ട്രാ പിന്നെ പെപ്സി രണ്ട് പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു ചെറിയൊരു നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പക്ഷെ ഞാനെന്തു ചെയ്തു ഓൺലൈനിൽ പിന്നെ പേയ്മെൻ്റാ ചെയ്തത് ഗൂഗിൾ പേ ഗൂഗിൾ പേ പേയ്മെൻ്റാണ് ചെയ്തത് പക്ഷെ എനിക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പേയ്മെൻ്റ് ആയോ എന്നറിയുന്നില്ലായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ വെബ്സൈറ്റ് തുറന്നിട്ട് നോക്കാനും പറ്റുന്നില്ല കാരണം ഭയങ്കര നെറ്റിൻ്റെ ഇഷ്യൂ കാരണം കുറച്ചു ഡിലെ ആയി പിന്നെ ഞാൻ ഓർഡറിൻ്റെ പേയ്മെൻ്റ് കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് നോക്കിയത് എനിക്ക് അവര് വന്നു കഴിഞ്ഞിട്ട് ക്യാഷ് കൊടുക്കണോ അതോ പേയ്മെൻ്റ് ആയോ എന്നറിയാതെ ക്യാഷ് കൊടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കി ഞാൻ ഓർഡർ ചെയ്തതിൻ്റെയൊക്കെ ആയോ എന്ന് അപ്പോൾ അതിലൊരു ഗ്രീൻ നമുക്കിങ്ങനെ ടിക്ക് വരുമല്ലോ ഓർഡർ സബ്മിറ്റഡെന്നു പറഞ്ഞിട്ട് അപ്പോൾ സബ്മിറ്റെഡ് നല്ല വിജയകരമായിരിക്കുന്നു സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇത് വന്നു പിന്നെ നോക്കുമ്പോൾ അത് കണ്ടാൽ പിന്നെ നോക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് നോക്കി ആ അതിൽ വിഡ്രോ ആയിട്ടുണ്ട് ക്യാഷ് ടൊമാറ്റോയിലോട്ട് തന്നെയാ വിഡ്രോ ആയത് അപ്പോൾ ആണ് ഒരു സമാധാനമായത്